ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന വിഭവങ്ങളൊക്കെ കൂടുതൽ രുചികരമാക്കാൻ എന്തെങ്കിലും തന്ത്രങ്ങളും കാര്യങ്ങളും ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കൈപ്പുണ്യം വേണം നമ്മൾ നല്ലൊരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കൈപ്പുണ്യം ഉണ്ടെങ്കിൽ തന്നെ ആ ഫുഡിന് നല്ല ടേസ്റ്റ് കാര്യങ്ങളൊക്കെയിരിക്കും അല്ലെങ്കിൽ നമ്മള് എന്ത് ഉണ്ടാക്കിയാലും വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല പിന്നെയെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറികളൊക്കെ ഉണ്ടാ ഉണ്ടാക്കുമ്പോൾ നമ്മള് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് അത് നല്ലവണ്ണം അതായത് നമ്മള് വറവ് ഇടുക അതായത് വറവ് മീൻസ് അതായത് കടുകും എണ്ണയും താളിച്ച് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ കറിക്ക് ഒരു പ്രത്യേകത ടേസ്റ്റ് ആയിരിക്കും അല്ലെങ്കിപ്പോൾ നമ്മളെന്ത് വെച്ചിട്ടുണ്ടെങ്കിലും അതിനൊരു പച്ച ചുവ മാറില്ല കടുകും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കറിവേപ്പില ഇടും അപ്പോൾ നമ്മൾ കുക്കറിലൊക്കെ കഷണങ്ങളൊക്കെ ഇടുമ്പോൾ കറിക്കായിട്ട് കഷണങ്ങളൊക്കെ ഇടുമ്പോൾ നമ്മൾ ഒരു ഇത് ഒരു കറി ഒരു തണ്ട് കറിവേപ്പിലയും ഒരു ഇത് ഒരു അര ടീ സ്പൂൺ പിന്നെ വെളിച്ചെണ്ണയും കൂടെ കുക്കറിലൊഴിച്ചിട്ട് അത് വേവുമ്പോൾ ഒഴിച്ചിട്ടുണ്ടങ്കിൽ ആ കറിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ വറവ് ഇട്ടിട്ടുണ്ടങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും അതാണ് ഞാൻ കൂടുതൽ ആയിട്ടും അതാണ് യൂസ് ചെയ്യാറ് അപ്പോൾ തന്നെ കറിക്ക് നല്ല വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം ഓയില് സൺ ഫ്ലവർ ഓയിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒഴിക്കാൻ പാടില്ല വെളിച്ചെണ്ണയ്ക്ക് മാത്രമേ ആവശ്യത്തിൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ